ഏതെങ്കിലും വാദ്യോപകരണങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഞാനിത് വരെ ഒന്നും വായിച്ചിട്ടില്ല എനിക്ക് പഠിക്കാനാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഗിറ്റാറും പിയാനോയും പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്കത് നടന്നിട്ടില്ല അന്നത്തെ സാഹചര്യത്തിൽ അന്നൊന്നും പഠിപ്പിക്കാനുള്ള നിവർത്തിയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടുകാർക്കില്ലാഞ്ഞോണ്ട് അതിനകത്തൊന്നും മുതിർന്നില്ല പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നല്ലരീതിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഓരോരുത്തർ ഗിറ്റാറൊക്കെ വായിക്കുന്നത് കാണുമ്പോൾ അയ്യോ എനിക്കത് പഠിച്ചില്ലല്ലോ എന്നൊരു പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലഭവനിലും അവിടെയൊക്കെ ഈ വെക്കേഷന് ഓരോരുത്തർ പഠിക്കാനൊക്കെ പോകും അന്നും നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഇത് വരെ പോയിട്ടില്ല ശ്രമിച്ചിട്ടും ഇല്ല ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ പഠിക്കുന്നതും അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൽ വീട്ടിന് തൊട്ടടുത്ത അന്നേരം അവിടെ ഒരു ചേച്ചി ഗിറ്റാറ് ഗിറ്റാർ അല്ല വയലിൻ വായിക്കാൻ വേണ്ടി വരുമായിരുന്നു അന്നേരം ആ വയലിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്ത് സഹായിച്ചതൊക്കെ ഞാനായിരുന്നു അന്നേരം ഞാൻ ആലോചിച്ചു ഞാനും പണ്ട് ഇതുപോലെയൊന്ന് പഠിച്ചായിരുന്നെങ്കിൽ എനിക്കിത് പോലെ നാലാളുടെ മുമ്പിലിരുന്ന് വായിക്കാനൊക്കെ പറ്റുമായിരുന്നല്ലോ എന്നൊരു ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇനി ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊരു മോനുണ്ട് ആ മോനെ മൂന്ന് വയസ്സായിട്ടുണ്ട് കുഞ്ഞിനെ അതെല്ലാം പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് അതും നമ്മുടെ നമുക്ക് പറ്റിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ട് എൻ്റെ മോനെ പഠിപ്പിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്